ഹലോ ഇത് ക്യാബ് ഏജൻസി അല്ലെ ഞാന് ഒരു ക്യാബ് ബുക്ക് ചെയ്യാൻ വേണ്ടി വിളിച്ചതാണേ ആ അപ്പോൾ എൻ്റെ അമ്മ എറണാകുളത്താണ് ഉള്ളത് അപ്പോൾ അമ്മേനെ കൂട്ടാൻ വേണ്ടി പോവാൻ വേണ്ടീട്ടായിരുന്നേ അപ്പോൾ നമക്കവിടം വരെ പോകാൻ എത്ര രൂപ വരുന്നറിയാൻ വേണ്ടിട്ടക്കെ ആയിരുന്നു ആ വേറെവിടേം പോകാനല്ല അമ്മേനെ കൂട്ടുക വരിക അപ്പ എൻ്റെ സുഹൃത്തുണ്ടാകും ഇവിടുന്ന് അവനെയും കൂട്ടീട്ട് പോകാൻ വേണ്ടീട്ടാ ആ എൻ്റെ വീടെന്ന് പറഞ്ഞ് കഴിഞ്ഞാല് നമ്മടിവിടെ അതായത് നമ്മുടെ മുക്കത്ത് നിന്ന് കുറച്ചിങ്ങോട്ട് വരണം അരീക്കോട് പോകുന്ന വഴിക്ക് ഒരു മുക്കത്ത്ന്ന് ഒരു പത്ത് കിലോമീറ്ററുണ്ടാവും ആ അതെ അതെ അവിടുന്ന് ആണ് പോകണ്ടത് എറണാകുളത്തേക്ക് അതെ അതെ ആ അപ്പോൾ നമുക്ക് എത്ര രൂപ വരും ആ എട്ടായിരം രൂപ അല്ലേ ആ വലിയ വണ്ടി ഒന്നും വേണ്ട ചെറിയ ചെറിയ വണ്ടി മതി ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും മാത്രേ വരുന്നൊള്ളു അവിട്ന്ന് അമ്മ ഇങ്ങോട്ട് തിരിച്ച് കൊണ്ട് വരാൻ വേണ്ടീട്ടാണ് ആ ഓക്കെ ഓക്കെ എന്നാൽ നാളെ ഒന്ന് രാവിലെ എട്ട് മണി ആകുമ്പോന്ന് വരണം കേട്ടോ ഒക്കെ